ആ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ഹോം അപ്ലയൻസ് ഒക്കെ വേണം അതിന് അത് വാങ്ങിക്കാനായിട്ട് ആണ് നിങ്ങളുടെ കടയിലേക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഫ്രിഡ്ജ് എസി കുക്ക് വെയർ ഇൻഡക്ഷൻ കുക്കർ ഓവൻ ടിവി ന്യൂ വീട്ടിൽ ആ പുതിയ വീട് പണിതിട്ടുണ്ട് ഉണ്ട് ഞങ്ങൾ അതിലേക്ക് വേണ്ടി ഉള്ള എല്ലാ സാധനങ്ങളും ഇലക്ട്രോണിക്സ് സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം വാങ്ങിക്കാൻ വേണ്ടീട്ട് ആണ് ആ പുതിയ മോഡൽ മതി ഞങ്ങൾക്ക് അത് പിന്നെ മുപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെയാണ് ഉദ്ദേശിക്കണത് ഞങ്ങൾക്ക് എൽജീടെ മതി ടിവി അതൊക്കെ റേറ്റ് കുറച്ച് തരും അല്ലോ അല്ലേ കുറെ സാധനങ്ങൾ അങ്ങനെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഓ ആ ശരി അപ്പം അപ്പം

ആ ആ ഓ നിങ്ങൾ തന്നെ ഇറക്കി ചെയ്തു തരുമോ ഒക്കെ എല്ലാം ചെയ്യും അല്ലേ ആ ഓക്കെ അപ്പം എന്താ ആ ഇരുപത്തെട്ടായിരത്തിൻ്റെ ആ അത് ആണ് ഏറ്റവും നിങ്ങളുടെ ഹൈ പ്രൈസ് ഉള്ളത് അത് ആണോ അതിൽ അപ്പുറത്ത് ഉള്ളത് ഇല്ലേ അതിൽ കൂടുതൽ ഉള്ളത് ഏത് ആണ് അതെ അല്ലേ ഓ ഓ ഓ ആ ആ ഞാൻ അത്ര ആണ് ഉദ്ദേശിക്കുന്നത് മുപ്പത്രണ്ടിൻ്റെ ആണ് ഉദ്ദേശിക്കണത് അപ്പം അത് തമ്മിൽ ഏകദേശം നമുക്ക് ഒരു നല്ല വലിപ്പത്തിൽ കാണാനും പറ്റുമല്ലോ ആ ആ അപ്പം ആ എല്ലാം വേണം വാഷിംഗ് മെഷീൻ വേണം അതെന്നെ ഈ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീൻ വേണം ഫ്രിഡ്ജ് വേണം അതെ എല്ലാം ഒരേ കമ്പനിയുടെ ആകുമ്പോൾ കംപ്ലയിൻറ്റ് വന്നാലും പിന്നെ നിങ്ങൾ വന്നിട്ട് റെഡി ആക്കി തരുമല്ലോ അല്ലേ ഒരേ കമ്പനി ആകുമ്പോൾ അതെ അല്ലേ ഓക്കെ ഓക്കെ അതെ അല്ലേ ഓ അങ്ങനെ ആണ് ആ കമ്പനി ചെയ്യുന്നത് ആ അപ്പം എൽജിയുടെ തന്നെ നോക്കാം എങ്കിൽ അത് ഫുൾ ഓട്ടോമാറ്റിക് അല്ലേ ആ ആ ടോപ്പ് അതെ മുകളിലേക്ക് എടുക്കുന്നത് ആ ആ

ആ ഡബിൾ ഡോറിൻ്റെ മതി ഡബിൾ ഡോറിൻ്റെ ആകുമ്പം ഒത്തിരി സ്പേസ് ഉണ്ടാകുമല്ലോ ആ ഞാൻ ഉദ്ദേശിക്കുന്നത് മെറൂൺ എടുക്കാൻ ആയിട്ട് ആണ് അതെ

ആ ശരിയാണ് സമയം ലാഭം കിട്ടുമല്ലൊ അല്ലേ ഓരോന്നും കണ്ടോണ്ട് ഇരിക്കുന്നതും ആ ആ ആ ആ ഓ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അല്ലേ ആ ഓ അതായത് ഞങ്ങൾ ഏകദേശം ഒരു ഒന്നര ലക്ഷത്തിനാണ് ബഡ്ജറ്റ് ഇട്ട് ഇരിക്കണത് അതിൽ അപ്പുറം ആണെങ്കിൽ ഞങ്ങൾക്ക് ഇഎംഐ എടുക്കേണ്ടി വരും ഒന്നര ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാം കവർ ചെയ്യും എങ്കിൽ പിന്നെ ഇപ്പത്തന്നെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാം അടച്ച് തീർക്കാം അല്ലെങ്കിൽ ബില്ല് പേ ചെയ്യാം അല്ലെങ്കിൽ ഇഎംഐ എടുക്കാനാണ് ഉദ്ദേശിക്കണത് ഇനി നിങ്ങൾ കുറച്ച് എന്താ റിഡക്ഷൻ ഒക്ക തരുമല്ലൊ അല്ലേ ഒര് ഒത്തിരി സാധനങ്ങൾ എടുക്കുന്നോണ്ട് ആ ആ ആ ആ ഓ അതെ അല്ലേ ആ അപ്പോൾ അപ്പം പിന്നെ ഞാൻ ഇപ്പത്തന്നെ കംപ്ലീറ്റ് അടച്ച് അടയ്ക്കാം ബില്ല് അടയ്ക്കാം അതാ ഉദ്ദേശം എന്തായാലും അതിനോക്കേ ആ പൈസ കൈയ്യിൽ ഉണ്ട്